നമസ്കാരം സ്വിഗ്ഗി അല്ലേ ഞാൻ നിങ്ങളുടെ നിങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു ബിരിയാണിക്ക് വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഇപ്പം തൽക്കാലം അത് ആവശ്യമില്ല കാരണം ഞാൻ ചെറിയൊരു അത്യാവശ്യത്തിനുവേണ്ടി ഞാൻ പുറത്തു പോകുകയാണ് അതുകൊണ്ടു തന്നെ എനിക്കിപ്പം ആ ഒരു ബിരിയാണി ആവശ്യമില്ല അപ്പം നിങ്ങൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ ഇപ്പം എന്തായാലും പൈസ നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് ഞാൻ എൻ്റെ കാർഡ് വഴി എൻ്റെ ബാങ്ക് വഴി നിങ്ങൾക്ക് ഞാൻ അയച്ചിട്ടുണ്ട് നിങ്ങൾ തൽക്കാലം ചെയ്യേണ്ടത് അതൊന്ന് എനിക്ക് തിരിച്ചയക്കണം ഇപ്പം എന്തായാലും നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം എനിക്കൊരു അത്യാവശ്യം അത്യാവശ്യത്തിന് വേണ്ടിട്ട് പുറത്ത് പോകണം അപ്പം എന്തായാലും ആ ഒരു ബിരിയാണി കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല നിങ്ങൾ കൊണ്ടുവന്നുകഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണല്ലോ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ വിനയ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എന്തായാലും എന്തായാലും ആ ഒരു ഞാൻ പറഞ്ഞ ബിരിയാണി ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് തിരിച്ച് അയക്കണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്